ഇപ്പം കൂടുതലായിട്ടും നമ്മുടെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ തന്നെ ചടഞ്ഞ് കൂടി ഇരിക്കുന്ന കുറേ ആൾക്കാരാണ് നമ്മളുടെ കൂട്ടത്തിലുള്ളത് നമ്മൾ ഇപ്പം ഇപ്പം അമ്മ ആണെങ്കിലും പലതരം ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക പ്രശ്നങ്ങൾ ഒക്കെ കൂടുതലായിട്ടും ഉണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എവിടെയും പുറത്ത് ഉള്ള ആളുമായിട്ട് ഇടപഴുക്കുന്നില്ല അവരുമായിട്ട് സംസാരിക്കുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പം അത് ഇവർക്ക് ഇവരുടെ ഇടയിൽ തന്നെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടാകും അപ്പോൾ ഈ ഹോം ക്വാറൻറ്റൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മുടെ ഇപ്പം നിപ്പ വൈറസ് ഒക്കെ ബാധിച്ചത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ടും ഹോം ക്വാറൻറ്റൈനും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യേണ്ടി വരുന്നത് കാരണം ചില സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൈൻമെൻറ്റ് സോണുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അവിടെയൊക്കെ അടച്ചിടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരിക്കും ഉണ്ടാകുക അപ്പം നമുക്ക് കൂടുതലായിട്ടും ഇങ്ങനത്തെ വിഷാദ രോഗങ്ങളും കാര്യങ്ങളുമൊക്കെ പിടിപെടാൻ ഉള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് കൊണ്ടാണ് നമുക്ക് അതിന് എതിരെ ഇപ്പം എന്താ പറയുക ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പരമാവധി പുറത്തും എല്ലായിടത്തും ട്രാവൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊന്നും വലിയ കുഴപ്പം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും